ആരോഗ്യ സംരക്ഷണത്തെ പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ നമ്മുടെ മതം ഹിന്ദു മതം ഹിന്ദു മതം അല്ലെങ്കിൽ ഹൈന്ദവ മതത്തിൽ ഇപ്പോൾ രണ്ട് നേരം മെയിനായിട്ട് രണ്ട് നേരം കുളിക്കാൻ ആണ് നമ്മള മുൻപ് തൊട്ടേ ആൾക്കാര് പഠിപ്പിച്ച് വന്നിരിക്കുന്നത് ആ രണ്ടു നേരം കുളിക്കുന്നത് കൊണ്ട് തന്നെ നമുക്ക് മനസ്സിന് ശാരീരികമായ മാനസികമായ ഒരു റിഫ്രഷ് ഉണ്ടാകുന്നു പറ്റുന്ന ശുദ്ധമായ വെള്ളത്തിൽ കുളിച്ച് കൈയും കാലുമൊക്കെ കഴുകി നമ്മുടെ മേത്തെ ആ അണു അഴുക്കും അണുക്കളും കാര്യങ്ങളും ഒക്കെ പോയാൽ തന്നെ നമുക്ക് കുറച്ച് ആരോഗ്യം ഉണ്ടാകും പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശുദ്ധമായ ഭക്ഷണം ഭക്ഷണം പാകം ചെയ്ത് ആണ് കഴിക്കാൻ പറയുന്നത് ഇപ്പോ ചൂടുവെള്ളം ചൂട് വെള്ളം ആയാലും പിന്നെ നല്ല കിണറിലിത്തെ പച്ച വെള്ളം അതായത് കിണറിൽ നിന്ന് കിട്ടുന്ന നേരിട്ട് കിട്ടുന്ന പച്ച വെള്ളം പിന്നെ പശുവിൻ്റെ പാല് പച്ചക്കറികള് ഇതൊക്കെയാണ് നമ്മുടെ മതമായിട്ട് നമ്മുടെ മതപരമായിട്ടുള്ള കാര്യങ്ങളിൽ പറയുമ്പോൾ മത്സ്യമാംസാദി മത്സ്യ മാംസങ്ങൾ ഒഴിവാക്കി പരമാവധി പച്ചക്കറികൾ ഉപയോഗിക്കാനാണ് നമ്മുടെ ഭ ഭാരത സ്മസ്കാരം നമ്മളെ കുറിച്ച് പഠിപ്പിക്കുന്നത്